അതെ പറയൂ എത്ര ദിവസമായി ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസമായി മരുന്ന് ഒന്നും മേടിച്ചില്ല ക്വാറൻറ്റെനിൽ നിന്നിട്ടുണ്ടായിരുന്നോ ഇനി നിങ്ങൾ ക്വാറൻറ്റെനിൽ നിൽക്കണം ജലദോഷം ഒക്കെ ഉണ്ടോ പോസിറ്റീവ് തന്നെയാണോന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ല പുറത്ത് മാസ്ക് ഇടണം സാനിറ്റൈസർ ഇട്ട് കൈ നല്ലോണം കഴുകണം ക്വാറൻറ്റെനിൽ നിൽക്കുന്ന ആളും ഫുഡ് കൊണ്ട് തരുന്ന ആളും മാസ്ക് ഇടണം എന്ന് പറയണം അതുപോലെത്തന്നെ കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ റൂം ആയിട്ടിടുക പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ കണ്ണ് മങ്ങൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചുമ തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മരുന്ന് ഏതാ പാരസെറ്റമോൾ ആണോ ഡോക്ടറെ കാണിച്ചിട്ടാണോ അതോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സ്വന്തം വാങ്ങിയതാണോ ഡോക്ടർ ഡോക്ടർ ഡോക്ടർ ഏതെങ്കിലും മരുന്ന് പിന്നെ വരാൻ പറഞ്ഞിരുന്നോ ഇത് ഇപ്പോൾ കുറച്ചു ദിവസമായില്ലേ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് റിസൾട്ട് പറയണേ മരുന്ന് അങ്ങനെ ആണെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് വഴി അയച്ച് തരാം